ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളും അവധി ദിനങ്ങളും ഒരുപാടുണ്ട് അതിൽ കുറച്ചു ഞാൻ വേണമെങ്കിൽ ഇവിടെ പറയാം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഓണം ഓണം ആഘോഷിക്കാറുണ്ട് ഓണം എന്നു പറയുന്നത് ഒരു പുരാതനമായ ആചാരമാണ് പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ചു ചോറും അതിനുള്ള പലഹാരങ്ങളും റെഡിയാക്കി കഴിക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടെ വിഷു കഴിക്കും അത് പടക്കങ്ങൾ പൊട്ടിച്ചു ഓരോ മധുര പലഹാരങ്ങളും കഴിച്ചാണ് അത് ആഘോഷിക്കുക പിന്നെ സ്വാതന്ത്ര്യ ദിനം അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ പറ്റി നിങ്ങക്ക് എല്ലാവർക്കും അറിയായിരിക്കുന്നതായിരിക്കും സ്വാതന്ത്ര്യ ദിനം നമ്മൾ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പരിപാടി ആഘോഷിക്കുന്നതാണ് ഓരോ നമ്മൾ മഹാാന്മാരെ പറ്റി പറയുകയും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ പറ്റിയും അവരെത്രമാത്രം കഷ്ടപ്പെട്ടു അവർ എന്തൊക്കെ യാതനകൾ വേദനകൾ സഹിച്ചു എങ്ങനെയാണ് നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ രാത്രി പകലില്ലാതെ നടക്കുകയും ഇന്ന് നമ്മൾക്ക് എന്ത് വസ്ത്രം ധരിക്കാനും എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയത് വലിയ വലിയൊരു കാര്യമാണ് കാരണം ബ്രിട്ടീഷ്കാരുടെ ഒരു വലിയ അധികാരത്തിലായിരുന്നു നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അവരുടെ കിഴുള്ള അടിമകളായിരുന്നു അതിൽ നിന്നെല്ലാം നമ്മളെ മഹാത്മാഗാന്ധിജിയാണ് രക്ഷിച്ചതും നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങി തന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവരെ ആദരിക്കുക വേണം ഒരിക്കലും അവരെ കുറിച്ചു മോശമായ ഒന്നും പറയാതിരിക്കുക അവരെ ആദരിച്ചു കൊണ്ടു തന്നെയാണ് ഞാൻ ഇന്നും പോകുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ദീപാവലികൾ ആഘോഷിക്കാറുണ്ട് ദീപാവലികൾ എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും വിളക്കുകൾ കത്തിച്ചു വളരെ ഭംഗിയോടെ വൈദ്യുതികളെല്ലാം ഉപയോഗിച്ചു കൊണ്ടും പടക്കങ്ങൾ പൊട്ടിച്ചു കൊണ്ടുമാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കാറുള്ളത് വളരെ നല്ല ഒരു ആഘോഷമാണ് ഞങ്ങളെല്ലാവരും അത് ഒരുപോലെ ആഘോഷിക്കാറുണ്ട് പിന്നീട് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഈദാണ് ഈദിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരിക്കും റംസാൻ നമ്മൾ അതിന് മുപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം ഉള്ള ഒരു ദിവസമാണ് നമ്മുടെ ആഘോഷം അന്ന് നമ്മൾ എല്ലാവരും ഓരോ നേരം പട്ടിണി കിടക്കാതെ നല്ല പോലെ ആഘോഷിക്കുന്നു നല്ല പുതിയ വസ്ത്രങ്ങളും പുതിയ പുതിയ പലഹാരങ്ങളും ഭക്ഷണങ്ങളും കഴിച്ചു അന്നത്തെ നോമ്പിനെ നമ്മൾ മുറിക്കുകയും നല്ലപോലെ ആഘോഷിക്കുകയും ചെയ്യുന്നു ഈദിനെല്ലാം പുതിയ വസ്ത്രങ്ങൾ ധരിചു പുതിയ പുതിയ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി പാകം ചെയ്താണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് പിന്നെ നമ്മൾ ക്രിസ്ത്യൻസ് ആഘോഷിക്കുന്ന ഒരു ചടങ് പള്ളിപ്പെരുന്നാൾ അതും വളരെ മനോഹരമാണ് പള്ളികളിൽ ഓരോ ബാൻഡ് മേളങ്ങളും അവരുടെ പ്രാർഥനകളും മൊഴികളും അതുപോലെ തന്നെ പല പല രീതിയിലുള്ളതും നടക്കാറുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ചുരുങ്ങിയ ചുരുങ്ങിയത് എന്നു പറയുമ്പോൾ വെറും ഒരു രണ്ട് മൂന്ന് ആചാരങ്ങളെ പറ്റിയാണ് ഞാാൻ ഇവിടെ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു